ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ തുന്നൽ പഠിക്കാൻ പോയിട്ടുണ്ട് എൻ്റെ അമ്മ കുറച്ചൊക്കെ തയ്ക്കുമായിരുന്നു അത് കണ്ടപ്പം എനിക്ക് ഒരു ആഗ്രഹം തയ്യൽ പഠിക്കണം എന്ന് അമ്മയുടെ കൈയിൽ നിന്ന് അമ്മ തയ്ക്കുന്നതൊക്കെ കണ്ടു ഇച്ചിരിയൊക്കെ അടിക്കാനുമൊക്കെ പഠിച്ചു അത് മൂലം ഞാൻ മറ്റൊരു ടീച്ചറിൻ്റെ അടുത്ത് പോയി തയ്യൽ പഠിക്കാൻ ഒരുങ്ങി അവിടെ ചെന്ന് ഞങ്ങൾ തയ്യൽ പഠിക്കാൻ ഒരുങ്ങി പല തെറ്റുകളുമൊക്കെ വന്നിട്ടുണ്ട് കൈ അടിക്കാനുള്ള ഇടത്ത് വേറെ രീതിയിൽ അടിച്ചു വച്ചു എല്ലാവരും കളിയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്നും ഞങ്ങൾ ഇതൊന്നും കണക്കിൽ എടുക്കാതെ തയ്യൽ വീണ്ടും പഠിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ തയ്യൽ പഠിക്കാൻ തൊടങ്ങി അങ്ങനെ തയ്യൽ പഠിച്ചു ഒത്തിരി ഒത്തിരി ഒത്തിരി നാൾ മെനക്കെട്ട് ഞങ്ങൾ തയ്യൽ പഠിച്ചു ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാായിരുന്നു തയ്യൽ പഠിക്കാനായിട്ട് അങ്ങനെ തയ്യൽ പഠിച്ചു പിന്നെ തയ്യൽ പഠിക്കാൻ ഇഷ്ട്ടമായിരുന്നെങ്കിലും തയ്യൽ പഠിച്ചാലും പഠിച്ചാലും ഒന്നും അങ്ങോട്ട് നല്ലത് ആയി വരുന്നില്ലായിരുന്നു പഠിച്ചെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു പക്ഷേ ആഗ്രഹമുണ്ടെങ്കിലും പഠിച്ചെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് കുറേ നാൾ എടുത്ത് തയ്യൽ പഠിക്കാനായിട്ട് തയ്യൽ പഠിക്കാൻ എങ്ങനെ മിഷീൻ മേടിച്ചു മിഷീൻ മേടിച്ചു വീട്ടിൽ ഇട്ട് തയ്യൽ പഠിച്ചു അതൊന്നു തയ്ക്കും പിന്നെ ഇച്ചിരി നേരം പോയി വേറെ എന്തെങ്കിലും കാര്യത്തിന് പോയി ഇങ്ങനെ മടിയുണ്ടാകും പക്ഷേ ആഗ്രഹമുണ്ട് ഒരുപാട് മടിയും കാണിക്കുമായിരുന്നു എങ്കിലും അത് പഠിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ഒന്ന് രണ്ട് കാര്യമിങ്ങനെ പിന്നെ പഠിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ പിന്നെ ഇങ്ങനെ പഠിച്ചു കുറച്ചു നാൾ ഇങ്ങനെ ആയി ആയി പഠിച്ചു പഠിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം ഞാൻ ഒരു പാവാട എനിക്ക് ഒരു കല്യാണത്തിന് പോകണവായിരുന്നു ആ പാവാട തയ്ച്ചു പാവാട തയ്ച്ചപ്പം അത് ശരിയായില്ല അപ്പം ആ പാവാട തന്നെ ഇട്ടു കൊണ്ട് പോകണമെന്ന് എനിക്ക് ഒരു ആഗ്രഹം അതിനു വേണ്ടി ഞാൻ അത് അഴിച്ചു രാത്രി കുത്തി ഇരുന്ന് അഴിച്ചു അത് വീണ്ടും തയ്ച്ചു അങ്ങനെ ഞാൻ ആ പാവാട ഇട്ടു കൊണ്ട് കല്യാണത്തിന് പോയി അത് എനിക്ക് ഒത്തിരി സന്തോഷം നൽകി കാരണം ആ പാവാട ഞാൻ തെറ്റിച്ച് അത് ശരിയാക്കാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷം തോന്നി അങ്ങനെ പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ തയ്ക്കാറുണ്ട് മടിയാണ് എങ്കിലും അതിന് പിന്നെയും വീണ്ടും തയ്ച്ചു തയ്ച്ചു നോക്കും അങ്ങനെ ഇടയ്ക്കൊക്കെ ചെയ്തു നോക്കാറുണ്ട് പിന്നെ ഇടയ്ക്കൊക്കെ തയ്ക്കും തയ്ച്ച് വരുമാനം ഉള്ള ഒരു കാര്യമായതു കൊണ്ട് ചിലപ്പോൾ ഒരു ആഗ്രഹം തോന്നും അന്നേരം തയ്ക്കും എന്തെങ്കിലുമൊക്കെ തയ്ക്കും നമ്മുടെ വീട്ടിലെ നമ്മുടെ കാര്യങ്ങളൊക്കെ തയ്ക്കുകയൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ഒക്കെ പോകുന്നു പിന്നെ തയ്യലിനെ കുറിച്ച് പറഞ്ഞാൽ തയ്യലെന്നു പറഞ്ഞ ഒരു വരുമാന മാർഗ്ഗമുള്ള ഒരു കാര്യമാണ് തയ്യൽ ഒരിക്കലും അത് നിന്ന് പോകുന്ന ഒരു സംഭവമല്ല തയ്യലെന്ന് പറയുന്നത് ഒരെണ്ണം ഡ്രസ്സ് എന്നു പറയുന്നത് എപ്പോഴും ഇങ്ങനെ മനുഷ്യൻ്റെ മാറി മാറി മാറി മാറി ഉപയോഗിക്കുന്ന ഒരു സാധനമായതു കൊണ്ട് എപ്പോഴും അത് തയ്ച്ചാൽ അതിനൊരു വരുമാനം മാർഗം ആവുകയും ചെയ്യും നല്ല കാര്യമുള്ള നല്ല തയ്ക്കാൻ തുടങ്ങിയാൽ അതൊരു നല്ല രസകരമായ ഒരു ജോലി തന്നെയാണ് അപ്പം ഇടയ്കൊക്കെ തയ്ക്കാറുണ്ട് ഇടയ്കൊക്കെ ഇങ്ങനെ തെറ്റും വരാറുണ്ട് എപ്പോഴും തയ്ക്കാത്തത് കൊണ്ട് തെറ്റു വരാറുണ്ട് വീണ്ടും അത് അഴിക്കും അഴിച്ചിട്ട് പിന്നേ അത് അത് തെറ്റി കഴിയുമ്പോൾ പിന്നേയും അത് വാശി കയറും തയ്ക്കണമെന്ന് അത് അങ്ങനെ തയ്ക്കും അങ്ങനെ വീട്ടിലൊക്കെ ഇരുന്ന് തയ്ക്കാറുണ്ട് പിന്നെ ചെറിയ ഇടയ്കൊക്കെ ചെറിയ തയ്ച്ചു കിട്ടുന്ന പൈസ ഞങ്ങൾക്ക് അത് ഒരു ആദായമായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തയ്യൽ നഷ്ടമുള്ള ഒരു ജോലിയൊന്നുമ ല്ല നല്ല സന്തോഷം തോന്നുന്നു അങ്ങനെയാണ് ഞങ്ങളുടെ തയ്യലിനെ കുറിച്ച് ഉള്ള വിവരങ്ങൾ അത്രയേ ഉള്ളു സന്തോഷം